കഞ്ഞിക്കുഴി ക്യാബ് ഏജൻസിയല്ലേ ഞാനാണെങ്കിൽ ഒരു ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ ഹോസ്പിറ്റൽ കേസെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ക്യാബ് ബുക്ക് ചെയ്യുന്ന അത്രയ്ക്ക് അർജൻറ്റ് കേസായത് കൊണ്ടാണ് ഞാൻ ക്യാബ് ബുക്ക് ചെയ്തപ്പോൾ തന്നെ ഞാൻ ആളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റൽ കേസാണ് വേഗം എത്തണം ഒത്തിരി ലെയ്റ്റ് ആകല്ലെ എന്ന് അപ്പോൾതന്നെ ഞാൻ ഫണ്ടും പേ ചെയ്തിട്ടിണ്ടായിരുന്നു ആള് എന്നോട് വേഗം തന്നെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വിളിച്ചിട്ടിപ്പോൾ ആൾ കോളെടുക്കുന്നില്ല ആൾ വേറെ കോൾലാണ് പിന്നെ വിളിച്ചപ്പം ആൾ ഔട്ട് ഓഫ് ക കവറേജ് ഏരിയാണ് എന്നാണ് പറയുന്നത് ഞാനെത്ര വിളിച്ചിട്ടും ആ റെസ്പോണ്ട് ചെയ്യുന്നില്ല അത്രയ്ക്ക് അർജൻറ്റ് ഹോസ്പിറ്റൽ കേസായത് കൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും വിളിച്ചോണ്ടിരിയ്ക്കുന്നത് ഇത് വരെയായിട്ടും അതിനൊരു റെസ്പോണ്ട് എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ പേ ചെയ്തിരിക്കുന്ന ഫണ്ടെനിക്ക് റീഫണ്ട് ചെയ്ത് തരേണ്ടതാണ് ഇനി ഇപ്പോൾ ഞാൻ വേറൊരു ക്യാബ് ബുക്ക് ചെയ്യാൻ പോവാണ് ഇനിയിപ്പോൾ നിങ്ങളെനിക്ക് ഫണ്ട് റീഫണ്ട് ചെയ്ത് തരിക ഞാൻ അര മണിക്കൂറായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാണ് എന്നിട്ടും ആളാണെങ്കിലെത്തീട്ടില്ല ഉയ്യോ ആളെത്തീട്ടില്ല ഞാനാണെങ്കിൽ വേറെ ക്യാബ് ബുക്ക് ചെയ്യുവാണ് അതുകൊണ്ടെനിക്ക് ഫണ്ട് റീഫണ്ട് ചെയ്ത് തരിക